ചെറുപ്പത്തിൽ ഒഴിവു സമയം കിട്ടിയാൽ അല്ലെങ്കിൽ ഒര് അവധി ദിവസം കിട്ടിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന വിനോദം എന്ന് പറയുന്നത് ടി വി കാണുന്നത് തന്നെയാണ് ടി വിയിൽ വരുന്ന സിനിമയും പാട്ടും എല്ലാ കൊച്ചുകുട്ടികളെപോലെയും കാർട്ടൂണും ഇതെല്ലാം എൻ്റെ ഒരു ഇഷ്ടവിനോദമായിരുന്നു കുട്ടികളെപ്പോലെ ഞാൻ മറ്റ് രണ്ടിനേക്കാളും ഒന്നും കൂടി പ്രിയം എനിക്ക് കാർട്ടൂണോട് തന്നെയാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് ഫോൺ കിട്ടിയതിനു ശേഷം ഞാൻ ഒഴിവു ദിവസം കിട്ടിയാൽ ഏറ്റവും അധികം സമയംചിലവിടുന്നത് ഈ ഫോണിൽ തന്നെയാണ് പണ്ട് ടി വിയിൽ ഞാൻ എന്തൊക്കെ കണ്ടോ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഫോണിൽ കാണുന്നത് സിനിമയായാലും പാട്ടായാലും ഇഷ്ടപ്പെട്ട പാട്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഞാൻ ഫോണിലാണ് കാണുന്ന കേൾ കാണുന്നതും കേൾക്കുന്നതും കാർട്ടൂൺ ചെറുപ്പത്തിൻ്റെ ആ ഒരു കാ സമയത്ത് കാണുന്നത് അത്രയും ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും ചിലസമയത്തൊക്കെ യൂടൂബിലൂടെയും മറ്റ് ആപ്പ് വഴിയൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോഴും എനിക്ക് ഏറ്റവും പ്രിയ വിനോദം എന്നു പറയുന്നത് വായന തന്നെയാണ് അത് ഫോണിലൂടെയും വായിക്കും അല്ലാതെയും വായിക്കും ഫോണിലെ ഈ ബുക്ക് എന്ന പ്ലാറ്റ് ഫോം അത് നമുക്കെല്ലാവർക്കും പരിചിതമാണ് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങളും നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് കിട്ടും അത് ഏത് പുസ്തകവും ആകാം എങ്ങനെയുള്ള പുസ്തകവും ആകാം ഇ ഈ ബുക്കിൻ്റെ ഒരു ഏറ്റവും നല്ല കാര്യം എന്നുപറയുന്നത് അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ആ അക്ഷരങ്ങളുടെ ഒരു സൈസ്സെന്നു പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടരീതിയിലേക്ക് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇത്തിരി പ്രിയം കൂടുതൽ നമ്മൾ വായനശാലയിൽ പോയി പുസ്തകം എടുത്ത് വായിക്കുന്നതു തന്നെയാണ് വായനശാലയിലെ പല ഷെൽഫുകളിൽ പോയി അ അന്വേഷിച്ച് അവസാനം നമ്മുടെ മനസ്സിന് യോജിച്ച ഒരു പുസ്തകം കിട്ടി അത് അവിടെ നിന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഒരു ഇ പുസ്തകം വായിച്ചാലും നമുക്ക് കിട്ടത്തില്ല പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു വിനോദം എന്നു പറയുന്നത് നൃത്തമാണ് വർഷങ്ങളായി നൃത്തം അഭ്യസിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിലൊരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ എനിക്കീ ഫോണിൽ വീഡിയോ നൃത്തത്തിൻ്റെ വീഡിയോ കാണാൻ വളരെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ് വലിയ വലിയ നർത്തകിമാർ ചെയ്യുന്ന നൃത്തം കണ്ടിട്ട് അതൊക്കെ ഞാൻ ഒന്ന് ചെയ്തു നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ച് അതൊക്കെ പഠിക്കാൻ താത്പര്യപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ അതുപോലെയൊക്കെ പഠിക്കാൻ ഞാൻ ഓരോ വീഡിയോ കണ്ട് അത് സേവ് ചെയ്ത് വെയ്ക്കുകയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് പിന്നെ അതിനു ശേഷം അത് പഠിക്കുകയും ചെയുന്ന കൂട്ടത്തിലാണ് ഞാൻ പിന്നെ വരുന്ന എൻ്റെ ഇഷ്ടവിനോദം എന്നുപറയുന്നത് വരയ്ക്കുക എന്നുള്ളതാണ് വരക്കുക എന്നുപറഞ്ഞാൽ അത്ര നന്നായി ഞാൻ വരയ്ക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല പക്ഷെ ഈ ഒരു വിനോദം അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം എന്നിലേക്ക് വന്നത് നമ്മുടെ കൊറോണ എന്ന മഹാമാരി നമ്മളുടെ നാടിനെ ബാധിച്ച് രണ്ടുവർഷകാലത്തോളം ലോക്ഡോൺ എന്നൊരു ബന്ധനത്തിൽ ആയി പെട്ടപ്പോളാണ് ആ സമയത്ത് യൂട്യൂബ് വഴി ഞാൻ വരയ്ക്കാൻ പഠിക്കുകയും അത് ചെറിയ ചെറിയ കുപ്പികളിൽ വരയ്ക്കുകയും ആദ്യം പേപ്പറുകളിൽ വരച്ച് നോക്കി പിന്നെ ഇഷ്ടമായി തുടങ്ങിപ്പോൾ കുപ്പികളിലേക്ക് അത് പകർത്തി വരയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ ആ കുപ്പികൾ വീട്ടിലെ അലങ്കാരമായിട്ട് വെച്ചിട്ടുണ്ട് അതും ഒരു ഇഷ്ടവിനോദത്തിൻ്റെ ഭാഗമാണ് പിന്നെ എനിക്ക് താത്പര്യം ഈ പേപ്പറുകൾ കൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്നാണ് അതിനു പറയുക അത് എനിക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ഞാൻ ചെയ്ത പലതും ഇന്നെൻ്റെ വീട്ടിലും എൻ്റെ റൂമിലും ഞാൻ അലങ്കാരങ്ങൾക്കായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം അവധി എനിക്ക് അടിപ്പിച്ചു കിട്ടിയാൽ ഈ കുപ്പിയിൽ വരയ്ക്കുന്നതും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നതുമൊക്കെയാണ് എൻ്റെ ഇഷ്ട വിനോദങ്ങൾ അതൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് കാശ് ഞാൻ മുടക്കും പക്ഷെ അത് ഞാൻ ഞാനെൻ്റെ കൂട്ടുകാരികൾക്കു കൊടുക്കുകയും ചിലപ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാരികൾക്കു ഒരു സമ്മാനമായിട്ട് അവരുടെ പിറന്നാൾ ദിനം ഒരു സമ്മാനമായിട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർക്കു കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് കാണാനാണ് ഞാൻ ഇതൊക്കെ കൊടുക്കുന്നതും ചെയ്യുന്നതും ഇപ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഇപ്പോഴും എനിക്ക് അടുപ്പിച്ച് കുറച്ച് ദിവസം മുടക്ക് കിട്ടിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഈ വിനോദങ്ങൾ ചെയ്യാനാണ്